നമുക്ക് പാട്ടിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനഘടകം എന്നു പറയണത് നമ്മുടെ ശ്വാസഗതി അല്ലെങ്കിൽ നമ്മുടെ വായുനിയന്ത്രണം ആണ് അതിന് എന്താ പറയുക അതിൽ നമ്മള് കുറേ കാര്യങ്ങള് ബന്ധപ്പെട്ടിരിക്കണണ്ട് വായുനിയന്ത്രണത്തില് അല്ലെങ്കിൽ എന്താ പറയുക വായു നിയന്ത്രണം നമ്മുടെ ശ്വാസഗതി താളം താളത്തിന് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്ര നേരം ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റും അപ്പോൾ അത്രയും ഹൈ പിച്ചിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസായിട്ട് നിർത്താണ്ട് ശ്വാസം എടുക്കാണ്ട് പാടാൻ പറ്റണണ രീതിയിൽ അപ്പോൾ എന്താ പറയുന്നത് നിർത്താണ്ട് പാടാൻ പറ്റുന്ന സംവിധാ അങ്ങനത്തെ ഇതിലേക്ക് നമ്മള് വളർന്ന് വരണം അതിന് നമുക്ക് മെയിനായിട്ട് സാധകം ചെയ്യുക പിന്നെ ശ്വാസം പിടിച്ചു വച്ചു വെള്ളത്തിനടിയിൽ അങ്ങനത്തെ കാര്യങ്ങള് ചെയ്യുക അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമുക്ക് കൃത്യമായി യോഗ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മുടെ ശ്വാസഗതി താളം കണ്ട് അതിൽ കൃത്യമായ ഇതുകള് എന്താ പറയുക നമുക്ക് ഒരു കഴിവ് കിട്ടും കൃത്യമായ ശ്വാസഗതി കിട്ടും അതോടൊപ്പം നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ കൂടുതൽ നേരം പാടാനും അത് നിർത്താണ്ട് പാടാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ കുറച്ചുനേരം പാടുമ്പോഴേക്ക് നമുക്ക് എന്താ പറയുക ലേശം ബുദ്ധിമുട്ടാവും പിന്നെ നിർത്തേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്താ നല്ലൊരു ശ്വാസം നമ്മള് പിടിച്ചു വെക്കണം അപ്പോൾ അതിന് ഈ സിഗരറ്റ് വലി അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല പിന്നെ ഒരുപാട് ലെങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളതില് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്